ഞാന് വാങ്ങിയിട്ടുള്ള എ സിന്നു പറയുന്നത് വിലക്കൂടിയ ഒരു എ സിയാണ് പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് അതില്നിന്നൊരു തണുപ്പനുഭവപ്പെടാന് സാധിച്ചിട്ടില്ല തണുപ്പ് ഉണ്ടെന്നു പറഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് അതിലെ വൈദ്യുതി ഉപയോഗം വളരെ കുറവാണെന്നും കൂടി മനസിലാക്കിയതുകൊണ്ടാണ് ഞാനത് വാങ്ങിട്ടുള്ളത് പക്ഷേ ഇത്രയും വിലകൂടിയ ഒരു സംഭവം ആയിട്ടും ഇതിന് ഒരു തണുപ്പനുഭവപ്പെടാന് എനിക്കിതുവരെ സാധിച്ചിട്ടില്ല ഇതില് നിന്ന് വരുന്ന ശബ്ദം അതിലും ഏറെ പ്രയസകരമാണ് രാത്രി എനിക്ക് ഉറങ്ങാന് സാധിക്കുന്നില്ല ഇതിൽ നിന്നുവരുന്ന ശബ്ദവും പിന്നെ ചില സമയങ്ങളില് ഇതില് നിന്ന് ഒരു വേറിട്ട ഒരു ശബ്ദ്വും കേൾക്കാറുണ്ട് ഇതില് നിന്ന് ചിലസമയത്ത് ഇതിലെ പ്രവര്ത്തിക്കാനുപയോഗിക്കുന്ന റിമോട്ട് ചില സമയത്ത് ഇത് പ്രവര്ത്തിക്കുന്നില്ല ഞാന് കുറെനേരമായി ശ്രമിച്ചിട്ടും അത് പ്രവര്ത്തിക്കുന്നില്ല പ്രവര്ത്തിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ തണുപ്പനുഭവപ്പെടും എന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിലകൂടിയ ഒരു സാധനം ഞാന് വാങ്ങിയിട്ടുള്ളത് കരണ്ട് ഞാന് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ തണുപ്പില്ലാന്നു മാത്രമല്ല വൈദ്യുതിയുപയോഗം അതികമില്ലാന്നു പറഞ്ഞിട്ട് ഞാന് മീറ്റര് റീഡിംഗ് നോക്കുമ്പോള് വളരെയധികം കൂടീട്ടാന്നുള്ളത്